നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റും അതിനു വേണ്ടത് നല്ലൊരു ജോലിയാണ് അടിത്തറയുള്ള ഒരു ജോലി അടിത്തറയുള്ള ഒരു ജോലി ഒരു കരിയർ നോക്കുമ്പോൾ നമുക്ക് സ്ഥിരതയായിട്ട് ഒരു അമ്പത്തേഴ് വയസ്സുവരെ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് ഒന്ന് മാത്രമേയുള്ളൂ കുറച്ച് പഠിക്കുക നന്നായി പഠിച്ച് പി എസ് സി എഴുതിയെടുക്കുക പി എസ് സിയില് ഒത്തിരി കാര്യങ്ങളുണ്ട് ഗവൺമെന്റിന്റെ ഇതില് ആ ലിസ്റ്റിൽ കയറിപ്പെട്ട് നമ്മള് രക്ഷപ്പെടുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഒരു ജോലി കിട്ടും പി എസ് സി ഈസ് മസ്റ്റ് കാരണം നമുക്ക് പറ ഏതൊരു കുട്ടിയും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഏതൊരു കുട്ടിക്കും പി എസ് സി എഴുതാം നല്ല വിദ്യാഭ്യാസവും മുന്നോട്ടുള്ള ജീവിതത്തിനും ഒരു അടിത്തറയാണെന്ന് വേണമെങ്കിൽ പറയാം പി എസ് സി എഴുതി ഒരു ഗവൺമെൻറ് ജോലി അതിന് അതാണ് നമ്മുടെ കരിയറിൻ്റെ നല്ലൊരു ഭാവി നിശ്ചയിക്കുക അതിനുവേണ്ടി നമ്മൾ അഹോരാത്രം കഷ്ടപ്പെടണം ഏ നല്ല ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ആരുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ആരുടേയും മുമ്പിൽ കൈനീട്ടണോ ഇല്ല നല്ലൊരു ജോലി നല്ല നമ്മുടെ കരിയർ നല്ല നമ്മുടെ കരിയർ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഏതാണ് നമുക്ക് ഇഷ്ടം അതിനനുസരിച്ച് നമ്മുടെ കരിയർ ഡിസൈൻ ചെയ്യേണ്ടത് നമ്മളാണ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുക പി എസ് സി എഴുതി ജോലിക്ക് കയറുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ ലൈഫിലും ഏറ്റവും ഒരു മുതൽക്കൂട്ടായിട്ട് ഉണ്ടാകുക